ഇന്ത്യൻ സിനിമയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും എനിക്ക് നല്ല അഭിപ്രായമാണ് കാരണം എന്ന് പറഞ്ഞാല് സിനിമ എന്ന് പറഞ്ഞാല് കൾച്ചറ് ഉള്ള സിനിമയാണ് നമ്മുടെ ഇന്ത്യയില് കൂടുതലായിട്ട് ഇതാക്കുന്നത് കൾച്ചർ ലെസ്സ് ആയിട്ടുള്ളത് അങ്ങനെ അല്ല സംസാ സംസ്കാര നമ്മുടെ സംസ്കാരത്തിന് ഒത്തിട്ടുള്ള സിനിമകളാണ് കൂടുതലുള്ളത് സംസ്കാരം ഇല്ലാത്തതും ഉണ്ട് പക്ഷേ സംഗീതം ന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറഞ്ഞാല് നമ്മളുടെ ഇന്ത്യൻ്റെ ഒരു കൾച്ചർ തന്നെയാണ് സംഗീതം എന്ന് പറഞ്ഞാല് സംഗീതം എനിക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും കർണാടിക് ആയാലും പിന്നെ നമ്മളുടെ സാധാരണ ഫിലിംസ് സോങ്സ് ആയാലും ഏതായാലും പ് എല്ലാ ഭയങ്കര ഇഷ്ടമാണ് കൂടുതല് ഇഷ്ടം സംഗീതങ്ങളാണ് സാധാരണ ഞാൻ വീട്ടില് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സംഗീതം കേൾക്കാറുണ്ട് റീസെൻറ്റ് ആയിട്ട് നമ്മളുടെ ഏറ്റവും നല്ല പാട്ട് എന്ന് പറഞ്ഞാല് നമ്മളുടെ കാന്താരയിലെ വരാഹറുപത് കൂടുതല് ഇപ്പോൾ ഈ റീസെൻറ്റ് ആയിട്ടുള്ള എനിക്ക് കൂടുതല് ഇഷ്ടം സീരിയകളും സിനിമകളും ഞാൻ സാധാരണ കാണാറുണ്ട് സിനിമ എന്ന് പറഞ്ഞാല് ഞാൻ കുടുംബപരമായിട്ടുള്ള സി സിനിമയാന്ന് കൂടുതലും കാണുന്നത് കുടുംബത്തിലുള്ള സ്റ്റോറി കുടുംബമായിട്ട് കുടുംബം അവരെ പ്രണയം ഇതില് എനിക്ക് പ്രണയം ഇഷ്ടമാണ് കുടുംബായിട്ട് ഉള്ളതും ഇഷ്ടമാണ് നമ്മള് കൂടുതലും എനിക്ക് ഇപ്പോൾ ഉള്ള മുമ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് എനിക്ക് മോഹൻലാല് പിന്നെ ജയറാമ് അങ്ങനെയുള്ള കുറെ നടന്മാരെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ആടുത്ത് കാലത്ത് എന്ന് പറഞ്ഞാല് നടൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഉണ്ണി മുകുന്ദനാണ് ഉണ്ണി മുകുന്ദൻ്റെ കൂടുതല് പിക് സിനിമയാണ് എനിക്ക് കൂടുതല് ഇപ്പോൾ ഇഷ്ടം പിന്നെ അതേ പോലെ സീരിയലും നോക്കാറുണ്ട് സീരിയല് കുറെ കാണാറുണ്ട് എന്ന് പറഞ്ഞാല് എൻ്റെ വീട്ടില് ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എല്ലം സീരിയല് ഇല്ലാതെ കഴിയില്ല സീരിയല് കാണും ഇടക്ക് കാണും സീരിയലില് എങ്ങനെയാണ് ഇപ്പോൾ അടുത്തു വരുന്ന സാന്ത്വനം എന്ന് പറയുന്ന കുടുംബ സീരിയല് ഉണ്ടായിരുന്നു വളരെ നല്ല സീരിയലാണ് അതിൽ ആണെങ്കിൽ അങ്ങനെ കുടുംബത്തില് എന്തെല്ലാം നടക്കുന്നത് നമ്മള് കുടുംബത്തില് എങ്ങനെ പെരുമാറണം കുട്ടികള് എങ്ങനെ പിന്നെ ഒരു ഏട്ടനിയൻമാര് എത്ര സ്നേഹത്തോടെ കഴിയുന്നു ആ കുടുംബത്തില് എന്തെല്ലാം നല്ല ഒരു മെസേജ് ആണ് ആ സാന്ത്വനം എന്ന് സീരിയലില് നമുക്ക് കാണാൻ പറ്റുന്നത് അതില് ആ നടിയാവട്ടെ എല്ലാവരും നല്ല മെയിൻ കാരെക്റ്റർ ഉള്ള കുറെ നടിമാരുണ്ട് അതില് നമ്മളുടെ ചിപ്പിയാവട്ടെ പിന്നെ രാജീവ് ആവട്ടെ അവരെല്ലാം നല്ല ഒരു കാരെക്റ്റർ ആയിരുന്നു അതുപോലെ അഞ്ച് അഞ്ജലി എന്ന് പറയുന്ന ആ സീരിയലിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് ആ കു ആ ശരിക്കുള്ള അവരുടെ പേര് ഗോപിക എന്ന് അവരും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നടിയാണ് പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വരാഹ വരാഹ രൂപം ഇതാ ഈ ആ പാ അതിനൊരു പ്രത്യേക ഭംഗിയാണ് കാരണം എന്ന് പറഞ്ഞാല് നമ്മളുടെ കൾച്ചറിന് കൂടുതലും നമ്മളുടെ ഈ കാസർഗോഡും പിന്നെ നമ്മളുടെ തുളുനാട് എന്ന് പറയും ആ തുളുനാടിലെ എല്ലാ കൾച്ചറിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു തെയ്യക്കോലത്തിനെ പറ്റിയിട്ട് പറയുന്ന സിനിമയാണ് ആ സിനിമയിലുള്ള ഓരോ രംഗങ്ങളും അത്രയും ആസ്വദിച്ചാണ് ഞാൻ ആ സിനിമ കണ്ടത് അതിലുള്ള പാട്ടുകളും പിന്നെ മനസ്സില് തട്ടിയ പാട്ടാണ് അതുകൊണ്ട് അതും വളരെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഗായകൻ എന്ന് പറഞ്ഞാല് എനിക്ക് ചിത്രചേച്ചിയാണ് വളരെ ഇഷ്ടപ്പെട്ട ഗായികയാണ് ആ എല്ലാ നല്ല ഒരുന്നാ നമ്മുടെ കേരളത്തില് എന്നല്ല ഇൻഡ്യയിലെ വാനമ്പാടി എന്നാണ് ചിത്രചേച്ചിയെ പറയുക ചിത്രച്ചേച്ചിയെ പറ്റി പറയുമ്പോൾ ചിത്രചേച്ചിയെ പണ്ടു തൊട്ടേ ഞാനെല്ലാം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചിത്ര ചേച്ചിടെ ആ സ വോയ്സ് കേട്ടിട്ടാണ് വളർന്നത് ഓരോ ചിത്രചെ കുറെ ഭാഷയില് നമ്മളുടെ സൗത്ത് ഇന്ത്യയിലാകട്ടെ നോർത്ത് ഇന്ത്യല് കുറെ ലാങ്ങ്ഗേജ്സില് നമ്മളുടെ ചിത്രചേച്ചി പാടിയിട്ടുണ്ട് ചിത്രചേച്ചിയെ പറയുന്നതെന്ന് പറഞ്ഞാല് അത്രയും മനോഹരമായ ഒരു ശബ്ദം ഇന്ത്യയില് വേറെ എൻ്റെ അഭിപ്രായത്തില് ഇല്ല എന്നാണ് ചിത്രചേച്ചിയാണ് പിന്നെ നമ്മള് ടി വി യില് ഈ ഇത് മാത്രമല്ല നമ്മള് സീരിയലും സിനിമ മാത്രമല്ല നമ്മളുടെ ഇത് റിയാലിറ്റി ഷോ കാണാറുണ്ട് അതിലും കുറെ കുഞ്ഞു ചെറിയ കുഞ്ഞുങ്ങളും തൊട്ട് മറ്റെ നാല് വയസ്സിൽ നിന്ന് തൊട്ട് പത്ത് അത്ര ചെറിയ അത്ര ഏജ് ലിമിറ്റ് ഒന്നുമില്ല അത്ര ചെറിയ കുഞ്ഞുങ്ങൾ പാടുന്ന അത്ര വളരെ മനോഹരമായിട്ടാന്ന് ഈ പാടുന്നത് എന്ന് പറഞ്ഞാല് എല്ലാം ഇപ്പോൾ പാടുന്നു എന്ന് മാത്രമല്ല അവരെ ഒരു കഴിവ് തന്നെ ദൈവം അവർക്ക് അനുഗ്രഹിച്ച് നല്കിയ ഒരു കഴിവാണ് അതുപോലെ സീരിയലിലായാലും സിനിമയിലായാലും കുറെ നടനും നടീമാരും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഉണ്ട് ഇപ്പോൾ ഫിലി സീരിയലില് അമ ഞാൻ പറഞ്ഞല്ലോ സീരിയലില് ആ സാന്ത്വനം സീരിയല് പിന്നെ കുടുംബവിളക്ക് എന്ന് പറയുന്ന ആ കുടുംബവിളക്കില് സീരിയലിലും അങ്ങനെ അത് ഒരു കുടുംബത്തിലെ കഥയാണ് ആക്ച്യെലി

ഇപ്പോൾ എല്ലാവരും നല്ല അതില് സുമിത്ര എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ഒരു എന്താന്ന് പറയുക ഒരു സ്ട്രോങ് ലേഡിയുടെ കഥാപാത്രമാണ് അപ്പോൾ സീരിയലും സിനിമ നമ്മള് സംഗീതം എല്ലാ ഒന്നിച്ച് ഇങ്ങനെ ടി വി യില് കാണും ഇടക്കിടക്ക് സിനിമ സി സംഗീതം ഇങ്ങനെ കാണും പക്ഷേ ഈ ഞാൻ ചെറുപ്പം തൊട്ടേ സംഗീതം കുറച്ച് ഇങ്ങനെ കുറച്ച് കൂടുതല് ഇഷ്ടപ്പുള്ള ഇഷ്ടം ഉള്ള ഒരാളാണ് കുഞ്ഞിലെ തൊട്ട് വെറുതെ ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കും പിന്നെ പാട്ടിനൊത്തു ചുവട് വെക്കും എല്ലാ ചെറിയ കാലിന് പിന്നെ സംഗീതം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് നമ്മളുടെ ഇന്ത്യയില് സംഗീതം എന്ന് പറഞ്ഞാല് കുറച്ച് ഇതാന്ന് സംഗീതത്തെപ്പറ്റി പറയാനും എന്ന് പറഞ്ഞാല് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് എന്തെന്നാണ് പറയുക സംഗീതം എന്ന് പറഞ്ഞാല് എല്ലാ മനസ്സിന് നമ്മളുടെ മനസ്സിനെ റിഫ്രഷ് ചെയ്യുന്ന ഒരു ഇതാണ് നമുക്ക് മനസ്സിന് അത്രയും ശാന്തമാക്കാനുള്ള കഴിവ് ഈ സംഗീതത്തിന് ഉണ്ട് അപ്പോൾ സംഗീതം മാത്രമല്ല എല്ലാ ഞാൻ സാധാരണ എന്ന് പറഞ്ഞാല് മീൻസ് സിനിമാ പാട്ടുകളും അല്ലെങ്കിൽ സിനിമാ പാട്ടിൽ നിന്ന് കുറച്ച് ഡി ജെ യും അങ്ങനെ എല്ലം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തില് സീരിയലും സിനിമയും എല്ലം കാണണം എന്നാണ് പക്ഷേ എല്ലാം ഒരു ലിമിറ്റേഷനില് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം